ഹലോ ഡോക്ടറല്ലേ ആ എനിക്ക് ഒരു പല്ല് വേദനയാണ് അപ്പോൾ അതൊന്ന് ആതൊരു വൺ വീക്കിന് മേലെയായി ആ നീരുണ്ട് ഭയങ്കരമായിട്ട് അപ്പം ആ ഉണ്ട് ഉണ്ട് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട് ഭയങ്കര വേദനയാണ് അണപ്പല്ലിനാണ് വേദന ഇപ്പം അപ്പോൾ അതിനെന്തെങ്കിലും ഇതാക്കണം ആ ഭയങ്കര പെയിൻ ആണ് അത് ആ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതിന് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ശ്രദ്ധിച്ചില്ല ഇപ്പം പിന്നെയുംപെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് കേട് രണ്ട് അല്ലല്ല ചേയ്തിട്ടില്ല പക്ഷേ ഇനി ചെയ്യേണ്ടിവരും എന്നാണ് തോന്നുന്നത് കാരണം ഫുൾ അത് പോയിട്ടുണ്ട്

റൂട്ട് കാനാൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ചെയ്യുമോ ആ അത് കോസ്റ്റ് ഒക്കെ എങ്ങനെ ആയിരിക്കും ആ ആണോ എങ്ങനെയാണ് ഒരു പല്ലിന് മാത്രമാണോ

ആണോ ആ ആ എൻ്റെ ബ്രദറിന് അങ്ങനെ ഇട്ടിട്ട് അത് ഇതായി പോകുകയാണ് ചെയ്തത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഡാമേജ് ആയി പോയി അപ്പം അതുപോലത്തെ

അപ്പോൾ അത് വരുമ്പം ആക്കിത്തരുമോ അങ്ങനെ ചെയ്തു തരുമോ അവർ

ആ ആണോ ആ ഇതിപ്പം നീരുള്ളത് ഇപ്പം എന്തായാലും ചെയ്യാൻ പറ്റില്ലല്ലോ ആ ആ ഓക്കെ ഓക്കെ അ എന്നാൽ ഡീറ്റെയിൽ അയച്ചാൽ മതി ഈ നമ്പറിൽ അവിടുത്തെ ലൊക്കേഷൻ